പത്തനംത്തിട്ട ജില്ലയുടെ സമീപ ജില്ലയായ കോട്ടയത്തിനടുത്ത് പള്ളിക്കൽതോട് അരുവികുഴി എന്ന സ്ഥലത്ത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട് അവിടെ വെള്ളച്ചാട്ടം ആണ് ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന പ്രത്യേകത തട്ട്തട്ടുകളായിട്ട് ഒഴുകുന്ന ജലം നമുക്ക് ഒഴുകിവരുന്ന മുകളിൽനിന്ന് താഴേക്ക് ഒഴുകുന്നത് ഏറ്റവും താഴെഭാഗത്ത് നിന്ന് സൈഡിൽ നിന്ന് കാണുവാനുള്ള ഒരു പ്രത്യേക സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് ജലനിരപ്പ് ഉയരുമ്പോഴാണേലും അപകടങ്ങളൊന്നും കൂടാതെ ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാനും വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ മനസ്സിന് ഒരു കുളിർമ്മയേകുന്ന ഒരു കാഴ്ച്ചയാണ് ദൈവം ഈ പ്രകൃതിയെ വളരെ മനോഹരിയായി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ സസ്യ ലതാതികളും നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്നവയാണ് വ്യത്യസ്തങ്ങളായ ഭൂമിയുടെ കിടപ്പിൽ വളരെ മനോഹരമായ് ഒഴുകിയെത്തുന്ന ജലം കൃഷിക്കും നമ്മുടെ വീട്ട് ആവശ്യങ്ങൾക്കുമായി ഉപകരിക്കാൻ നമുക്ക് കഴിയുന്നു വ്യത്യസ്തതയുടെ മനോഹാരിതയാണ് ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇവിടെയുള്ള മനുഷ്യര് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അവര് പ്രകൃതിയെ നോവിക്കാതെ പ്ലാസ്റ്റിക് മറ്റ് മാലിന്യങ്ങള് ഒന്നും അവിടെ വലിച്ചെറിയാതെ അതെല്ലാം കൃത്യമായ് നിക്ഷേപിക്കുവാനുള്ള സ്ഥലങ്ങളവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുമൊത്ത് കുറച്ച് നേരം ആ വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു കാഴ്ച്ചയുണ്ട് വീട്ടിൽതന്നെ ഇരുന്ന് മുറിക്കുള്ളിൽ മൊബൈലും പിടിച്ച് അല്ലേൽ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് സമയം കളയുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള വിനോദസഞ്ചാരകേന്ദ്രങ്ങള് ഏറെ പ്രയോജനകരമാണ് അധികം പണം മുടക്കാതെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ സ്ഥലം പോയി സന്ദർശിക്കാനും അതിൻ്റെ ആ മനോഹാരിത കണ്ട് ആസ്വധിച്ച് അവിടെനിന്ന് ഇത്തിരി ഐസ്ക്രീമും ഒക്കെ കഴിച്ച് സ്നേഹം പങ്കുവെച്ച് സാഹോദര്യത്തോടെ മറ്റുള്ളവരുടെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ അരുവിപ്പുഴയിൽ പോയി കണ്ട് ആ മനോഹാരിത ആസ്വദിക്കുവാൻ കഴിയട്ടെ